എൻ്റെ വീട്ടിലേക്ക് വരുന്ന അതിഥികളെ കൂടുതലായിട്ടും ഞാൻ കൊണ്ട് പോകാനാഗ്രഹിക്കുന്ന സ്ഥലങ്ങള് എൻ്റെ ചുറ്റുമുള്ള സ്ഥലങ്ങള് തന്നെയാണ് ഞാൻ പാലക്കാടാണ് ജീവിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്ക് പാലക്കാടുള്ള അന്തരീക്ഷവും പാലക്കാടിൻ്റെ പച്ചപ്പും ഹരിതാഭവുമെല്ലാം ഒരുപാടിഷ്ടമാണ് അപ്പോൾ എൻ്റെ അതിഥികള് വീട്ടിലേക്ക് വരുന്നതും അങ്ങനെയുള്ള സ്ഥലങ്ങളെ എൻജോയ് ചെയ്യാൻ വേണ്ടി തന്നെയാണ് അപ്പോൾ ആദ്യമായിട്ട് ഞാൻ കൊണ്ട് പോകാനാഗ്രഹിക്കുന്നത് നെല്ലിയാംമ്പതി എന്ന സ്ഥലത്തേക്കാണ് അവിടെ എന്തുകൊണ്ടാണ് കൊണ്ടു പോകാനാഗ്രഹിക്കുന്നതെന്ന് ചോദിച്ച് കഴിഞ്ഞാല് വളരെ ശാന്തമായൊരന്തരീക്ഷിതവു അന്തരീക്ഷമാണവിടെയുള്ളത് അതുപോലെ തന്നെ അവരുടെ ജീവിതങ്ങൾ നമ്മളുടെ ജീവിതത്തെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് വ്യത്യസ്ഥമാണ് അതായത് അവിടെ ജീവിക്കുന്ന ആളുകളുടെ ജീവിതം നമ്മളിൽ നിന്നും പല രീതിയിലും വ്യത്യസ്ഥമാണ് നമുക്ക് നൽകുന്ന അല്ലങ്കിൽ നമുക്ക് ലഭിക്കുന്ന അത്രയും തന്നെ സാലറിയൊന്നും അവർക്ക് ലഭിക്കാറില്ല അവരുടെ ജോലിയില് അവിടെ ഒരുപാട് തേയില കൃഷികള് ചെയ്ത് ജീവിക്കുന്ന ആളുകളെ കാണാൻ കഴിയും ഷുഗർ ഫാക്ടറികളും ചോക്ലറ്റ് ഫാക്ടറികളും എല്ലാം കാണാൻ കഴിയും അപ്പോൾ അതൊരു വ്യത്യസ്ഥ അനുഭവം തന്നെയായിരിക്കും അതുപോലെ തന്നെയാണ് കവാ എന്നീ സ്ഥലങ്ങളെല്ലാം സൈലൻറ്റ്വാലി എന്നീ സ്ഥലങ്ങളെല്ലാം ഫോറസ്റ്റ് ഏരിയ ആയത് കൊണ്ട് തന്നെ വളരെ ശാന്തമായ അന്തരീക്ഷത്തിൽ കുറച്ച് നേരം സമയം ചിലവഴിക്കാൻ കഴിയും പിന്നെ അതുപോലെ ടിപ്പുസുൽത്താൻ്റെ കോട്ട അതിലേക്ക് പോകുമ്പോൾ ശരിക്കും നമ്മളൊരു ചരിത്രത്തിലേക്ക് പോകുന്നത് പോലെയാണ് അതൊക്കെ കണ്ടിരിക്കേണ്ട സ്ഥലങ്ങളായത് കൊണ്ട് തന്നെ അതെല്ലാം കാണിച്ചു കൊടുക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്